ആ നമ്മുടെ സമൂഹത്തിൽ നൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ഓണം വന്നുകഴിഞ്ഞെന്നാൽ തിരുവാതിരക്കളി എന്നുപറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നൃത്തം തന്നെയാണ് അതുപോലെത്തന്നെ ഇപ്പം പള്ളികളിലൊക്കെയാണെങ്കിലും മാർഗ്ഗം കളി അതേപോലെത്തന്നെ വേറെ മുസ്ലിം സമുദായത്തിലൊക്കെയാണെങ്കിൽ ആ അവരുടെ ഒപ്പന അങ്ങനെയൊക്കെയുള്ള വല്യ ഓരോരോ നൃത്തരൂപങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുപോലെത്തന്നെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ കല്യാണ ആഘോഷ പരിപാടികളിലൊക്കെയാണെങ്കിലും ഇപ്പോൾ നൃത്തങ്ങളില്ലാത്ത ഒരു ആഘോഷപരിപാടികൾ തന്നെ ഇല്ലെന്നായിട്ടുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ ഉത്സവ ഉത്സവത്തിന് ഉത്സവത്തിനൊക്ക വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഉത്സവങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നൃത്തം ഒരു നൃത്തപരിപാടി വെയ്ക്കുന്നത് മിക്കവാറും എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ച്ച തന്നെയാണ് അതുപോലെത്തന്നെ എല്ലാ മിക്ക ആഘോഷ പരിപാടികളിലും നൃത്തരൂപങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം തന്നെയാണ് നൽകി വരുന്നത്